എൻ്റെ പ്രദേശം എന്ന് പറയുന്നത് ഗ്രാമപ്രദേശമാണ് ഇവിടെ ഇങ്ങനെ അങ്ങനെ ഒരു ആരോഗ്യം അങ്ങനെ ആരോഗ്യത്തിനെ ഇതാക്കുന്ന വെല്ലുന്ന ഒരു രോഗങ്ങൾ അങ്ങനെ പടർന്ന് പിടിച്ചിട്ടില്ല കൂടിപ്പോയാൽ ഇപ്പം കൊറോണ സമയത്താണെങ്കിൽ ഇപ്പം എല്ലാ സ്ഥലത്തും ഉള്ളത് പോലെ തന്നെ പല ഒരോരുത്ത് പല വീടുകളിലും ഉണ്ടായിരുന്നു കൊറോണ അത് പിന്നെ നമുക്ക് തടഞ്ഞ് നിർത്താവുന്നതിനേക്കാളും അധികമായിരുന്നു ആ സമയത്ത് പിന്നീട് ഈ രോഗം വരാണ്ടിരിക്കാനുള്ള സാഹചര്യം അവർ നോക്കിയിട്ടുണ്ടായി ഇപ്പോൾ മഴക്കാലമാണെങ്കിലും വേണ്ട എന്ന് വച്ചാൽ മലേറിയ ഡെങ്കു പകരാനുള്ള സാഹചര്യങ്ങൾ അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു മരുന്നടിക്കുക അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു പിന്നീടെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ രീതിയിൽ ഒരു സ്ഥലത്ത് ചെയ്യുന്നതാണ് അതിൻ്റെ കൂടുതലയിട്ട് അവരും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ എൻ്റെ സ്ഥലത്ത് അങ്ങനെ ഒരു ആരോഗ്യകരമായ പ്രശ്നങ്ങൾ അങ്ങനെ വീഴ്ചകളുണ്ടായിരുന്നില്ല നഗരത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാലിന്യങ്ങൾ ഇടുന്ന സ്ഥലത്ത് കൂടുതലയിട്ട് അങ്ങനെ ഒരു ഫുഡ് പോയിസൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റും അത് അവിടുത്തെ ഒരു നഗരം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണ് പിന്നെ അവിടെ കൂടുതലായിട്ട് രോഗങ്ങൾ വരാനും ചാൻസസ് കൂടുതലാണ് കാരണം അവിടെ വായു സഞ്ചാരം കൂടുതൽ വായു മലിനീകരണം കൂടുതലായിരിക്കും ശുദ്ധ മലിനീകരണം അതുകൊണ്ട് തന്നെ അവിടെ രോഗങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളും കൂടുതലായിരിക്കും ഗ്രാമപ്രദേശമാകുമ്പം ഈ വക സഹചര്യങ്ങളൊന്നും ഇല്ല അവിടെ അതുകൊണ്ട് തന്നെ സാധാരണയായി കാണുന്ന രീതിയിലുള്ള ഇപ്പോൾ ഇപ്പം ചില ഇപ്പം നിപ്പ എന്ന് പറയുന്നത് കോഴിക്കോട് ചുരു സ്ഥലത്ത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളു പിന്നീട് അത് മറ്റ് സ്ഥലത്തേക്ക് പോയിട്ടില്ല അതെന്ന് പറയുന്നത് അവിടത്തെയും ജീവിത സാഹചര്യങ്ങളും മറ്റ് സ്ഥലത്തെ ജീവിത സാഹചര്യങ്ങളും വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സലത്തും ഉള്ള പോലെ തന്നെ മറ്റ് സലത്തും ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കും ഇപ്പം എൻ്റെ ഒരു പുഴയോര പുഴയോര പ്രദേശമാണെങ്കിലും അവിടെ അങ്ങനെ ഒരു രോഗം വരാനുള്ള ചാൻസസും കൂടുതലാണ് വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗങ്ങളും വരാൻ ചാൻസസ് ഉണ്ട് പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെത്തെ ആൾക്കാർ ഉണ്ടാക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നമില്ല പക്ഷേ എപ്പോഴും ഈ ഒരു പ്രദേശത്ത് എന്തോരം രോഗങ്ങൾ പടർന്ന് പിടിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു എല്ലാ സ്ഥലത്തും ഒരു പോലെ ആവണം എന്നില്ലല്ലോ എൻ്റെ സ്ഥലത്ത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല അത്കൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് അഭിപ്രായം പറയാനും പറ്റാത്തൊരു സ്ഥിതിയാണ് അത് പിന്നെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മലിനീകരണം നല്ല രീതിയിൽ ക്രമമായി നടത്തുകയാണെങ്കിൽ രോഗത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല പിന്നെ കൂടെ കൂടെ ഉള്ള ഒരു ചികിത്സ ഒരു ഒരു പരിശോധനയൊക്കെ വളരെ നല്ലതാണ് അതാണ് എനിക്ക് പറയാൻ പറയാനുള്ള നിർദ്ദേശങ്ങൾ